ഞാൻ എഴുതുന്നത് എനിക്ക് ഒരു ഹോബിയായിട്ടാണ് കരുതിയിരിക്കുന്നതെന്നു വെച്ചാൽ എഴുതുമ്പം എനിക്ക് കഥ എനിക്ക് കഥകൾ കേൾക്കാനും കഥകളെഴുതാനും നൽ ഭയങ്കരമിഷ്ടമാണ് അപ്പതു കൊണ്ട് ഞാൻ എഴുത്തിലോട്ട് കയറുമ്പം എനിക്ക് അതേ പോലെ തന്നെയെനിക്ക് എനിക്ക് ഒറിജിനൽ ഐഡിയാസ് അതു വഴി നല്ലൊരു ഷോട്ട് ഫിൽമിനുള്ള കഥ അല്ലേ നല്ലൊരു നോവലിനൊരു കഥ അങ്ങനെയെല്ലാം നോ അങ്ങനെയുള്ള കഥകൾ എനിക്ക് മനസ്സ് ഉണ്ടെങ്കിലത് എഴുതിയെടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്ത് നല്ലൊരു കഥയായിട്ടെടുക്കാൻ എടുക്കാനാണ് ഞാനെഴുത്ത് എഴുത്തിലൂടെ എൻ്റെയൊരു നേട്ടം അതല്ലാതെ പിന്നെ നമുക്കെഴുത്തിലൂടെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷൻസി കൂട്ടാം നമുക്ക് ഇംഗ്ലീഷ് ഭേദമായിട്ട് സംസാരിക്കാൻ പറ്റും അതല്ലാതെ പിന്നെ നമുക്ക് നമ്മളെ ഒരു സ്ട്രങ് സെൻറ്റെൻസ് സ്ട്രക്ച്ചറൊക്കെ നന്നായിട്ട് പഠിക്കാനുള്ളതിലൊരു നല്ല സ്കോപ്പുള്ളൊരു ഇതാണ് എഴുത്ത് പിൻ അതാണ് ഞങ്ങൾ എഴുത്തിലൂടെ ഏറ്റവും വലിയ നേട്ടം എന്നു പറഞ്ഞാൽ ഈ ലാ ഇത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അതല്ലാതെ തന്നെ റൈറ്റിങ്ങെന്നു വെച്ചാൽ എന്താ സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെയാണ് എറ്റവും മെയിനായിട്ടുള്ളൊരു ഡെവലപ്പ്മെൻറ്റ് അതല്ലാതെ പിന്നെ നമുക്ക് എന്താ റൈറ്റിങ് സ്പീഡ് ഇപ്പം നമ്മൾ കോളേജിലും കോളേജിലും എക്സാംസിനൊക്കെ നമ്മൾ എക്സാമിനെഴുതുമ്പം ഒന്ന് നമ്മൾ എഴുത്ത് സ്ലോവാണ് സമയം ഭയങ്കര കുറവായിരിക്കും സമയം ന സമയം കുറവാണ് അപ്പം എങ്ങനെ പോയാലും എക്സാം തീർക്കത്തില്ല ഇതു പോലെ റൈറ്റിങ് നല്ല പ്രാക്ടീസ് വരികയാണെ നമുക്ക് നമുക്ക് എക്സാമിന് നമുക്ക് കിട്ടുന്ന കണക്കിനതേപടി എഴുതുകയും ചെയ്യാം അതേ സമയത്ത് നമ്മളെഴുതുന്ന കണ്ടെൻറ്റ് സ്പീഡിലെഴുതുകയും ചെയ്യ എഴുതി തീർക്കാനും പറ്റും അതാണ് നമ്മൾ റെയ്റ്റിങ്ങിൽ കൂടി മൂന്ന് എൻറ്റഭിപ്രായത്തിൽ മൂന്ന് ഒരു മൂന്ന് ബെനഫിറ്റ്സ്